ഹലോ ഡോക്ടർ അല്ലേ ആ ഡോക്ടർ എനിക്ക് രണ്ട് ദിവസം ആയിട്ട് ഭയങ്കര പനിയും ചുമയും ഉണ്ട് ആ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ആ അതിന് മുമ്പ് ചെറുതായിട്ട് ഒരു ഇത് ഉണ്ടായിരുന്നു കോവിഡ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കെയറ് ചെയ്തില്ല ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ട് ശരിക്ക് നല്ല പനിയും ചുമ എല്ലാം ഉണ്ട് ജലദോഷം എല്ലാം ഉണ്ട് ഇല്ല മെഡിസിൻ ഒന്നും ഇല്ല മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല അപ്പോ രണ്ട് ദിവസം മുമ്പ് ശരിക്കും നല്ല മഴ നനഞ്ഞായിരുന്നു ഇനി അതുകൊണ്ട് ആണോ എന്താണ് ചുമ അറിയില്ല ശരീരം മുഴുവൻ വേദന ഉണ്ട് ദേഹ വേദനയും ഉണ്ട് ഹലോ ഡോക്ടർ ആ ഡോക്ടർ ഇവിടെ ഭയങ്കരമായിട്ട് കൊതുക് വളർന്ന ഒരു കേന്ദ്രം അടുത്ത് ഭയങ്കര ചുമ കാരണം ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഡോക്ടറെ അപ്പോൾ ഭയങ്കര ആയിട്ട് തലവേദന ഇണ്ട് അപ്പോ ഇതിന് എന്ത് ചെയ്യണ്ടത് ഇപ്പോൾ ഞാൻ ഡോക്ടറ് ക്ലിനിക്കിൽ എപ്പോഴാണ് ഉണ്ടാവുക

ആ ആ ആ ആ ആ ആ അതെ

ആ ആ ആ ആ ആ ആ ആ ആ ആ ഡോക്ടർ അത് പോലെ ഈ കാലുവേദന ഭയങ്കരമായ കാലുവേദന ദേഹം മുഴുവൻ വേദന ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കാലുവേദന ഭയങ്കരമായിട്ട് ഉണ്ട് മുട്ടുവേദനയും കാൽ എനിക്ക് ഏജ് ഫോർട്ടി സെവൻ ആ ആ ആ ആ വെരിക്കോസ് വെയിൻ ഇല്ല ഡോക്ടർ വെരിക്കോസ് വെയിൻ ഇല്ല മുട്ടുവേദന ഉണ്ട് ഭയങ്കരമായിട്ട് അതെ ആണോ

ആ ആ ആ

ആ ആ

അതെ പിന്നെ ഉണ്ടല്ലോ ഡോക്ടറെ ഇത് ഈ തലവേദന ഭയങ്കരമായ തലവേദനയും ഉണ്ട് അത് തീരെ പനിയുടെ ഭാഗം ആയിട്ട് ഉള്ളത് ആയിരിക്കുമോ ആ ആ ആ ആ ആ ആ

ആ ആ ആ ആ ഓക്കെ ഡോക്ടർ താങ്ക് യു അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ